ഇപ്പ നമ്മള സ്ഥലത്തെക്കോച്ച് കഴിഞ്ഞാ ദിവസക്ക്ല്ല കാലാവസ്ഥിലും പല പല ഇതൊക്കെയാണ് നടന്നതും ഇപ്പ പാവല് കഴിഞ്ഞ് കഴിഞ്ഞാ വാഴ വാഴ കഴിഞ്ു കഴിഞ്ഞാ നെല്ല് അങ്ങനെ അങ്ങനെ അങ്ങനെ പലതും പോലും നെല് വരില്ല പാവല് കപ്പ പിന്നെ പടവരം അങ്ങനെ ഓരോന്നൊക്കെയാണ്ത് നെല്ല് കൊല്ലാ കാല കാലാകാലങ്ങളട്ട നെല് നെല്ല്ലിൻ്റെ പാടത്ത് നെല് തന്നെയാണ് വാഴ വാഴത്തോട്ടം വാഴ സീസൺ ആകുമ്പോ സീസൺ ആകുമ്പോ വഴൻറെേറ്റ് മാറുന്നതിനനുസരിച്ച് ഒരു മാറ്റി മാറ്റി വെക്കുന്നതണം പിന്നെ അതുപോല തന്നെ പാവലൻ്റെ പാവിൻ് എടേക്കൂടെ തന്നെ ഓവവും മറ്റേ ഇപ്പം നമ്മള് പയറ് കൃഷിയും കൂടെ ചെയ്യുന്നുണ്ട്വര് പല പല ഇപ്പ മഴക്കാലത്ത്ന്ന് വെച്ച് കഴിഞ്ഞാ കൂടുതലും വാഴ ഉണ്ടാവും നെല്ലോടെന്നെ വെള്ളം കറി അല്ലെങ്ക ഒരു പല കൃഷികളും പോുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു പയറും കാര്യങ്ങളൊന്നും മഴക്കാലത്ത് നടാറുള്ള അങ്ങനേക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാലാവസ്ഥാ വെച്ചാ മഴക്കാലം മാത്രം കൊറച്ചൊരു ഇതായിട്ട് നിക്കുന്നുള്ളൂ ഇപ്പം പാഴ കൃഷിയാണ് കൊറച്ചും കൂടെ ലോസ്സ ആായിട്ട് എക്കുന്നത് അപ്പൊ നെല്ലൊക്കെ വെച്ച് കഴിഞ്ഞാല് കലകാലായിട്ട് ഇവിടെ നടന്നയാണ്